ഈ പ്രൊഡക്റ്റിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് സ്പേസ് കുറവാണ് അത് കൊണ്ട് തന്നെ വേറൊര് മെമ്മറി കാർഡ് യൂസ് ചെയ്യണ്ടതായിട്ട് വരും അപ്പോൾ ക്യാ ഇപ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വളരെ കുറവായത് കൊണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ വരുമ്പോൾ ഫോണ് പെട്ടെന്ന് ഹാങ്ങ് ആകുന്നു അത് വലിയൊരു നെഗറ്റീവാണ് ഇതിൻ്റെ